ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പാർട്ടികളേം പറ്റി അഭിപ്രായം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ ലൈക്ക് നല്ല നല്ലോണം രാഷ്ട്രീയം ചെയ്യുന്ന കുറെ ആളുകളുണ്ട് എന്നാൽ വളരെ മോശം രീതിയിൽ രാഷ്ട്രീയം ചെയ്യുന്ന കുറെ ആളുകളുണ്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കാതെ ആ കാശ് മൊത്തം കൊള്ളയടിച്ച് ജീവിക്കുന്ന കുറെ രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ട് അവരെ എല്ലാം

പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പോലെയുള്ള ഇഷ്ടം പോലെ ആൾക്കാർക്ക് മലയാളം പോലും മര്യാദയ്ക്ക് വായിക്കാൻ അറിയില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഒരു ബേസിക്ക് എജ്യൂക്കേഷനുള്ള ആളുകളെ മന്ത്രിയാക്കണം എന്ന് എനിക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ട് അവർക്ക് അതിന് വേണ്ടിട്ടുള്ള ഒരു എക്സാം വെച്ച് അതിൽ നിന്നവരെ തെരഞ്ഞെടുക്കണമെന്ന ഒരഭിപ്രായം ഉണ്ട് പിന്നെ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തത്തുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയെക്കുറിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യം അതി മനോഹരമായ രാജ്യമാണ് കാണാൻ ഇഷ്ടം പോലെ കാഴ്ചകൾ ഉള്ള രാജ്യമാണ് വളരെ എല്ലാ ഇങ്ങനെ കുറെ കാര്യങ്ങളും ഇന്ത്യെനെ പറ്റിയുണ്ട് പക്ഷേ ഇഷ്ടമല്ലാത്ത രാജ്യങ്ങൾ കാര്യമെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടത്തെ ആളുകളുടെ പ്രത്യേകിച്ച് ചില ചില ഏരിയാസിലെ ആളുകളുടെ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല കാരണം ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ചെന്ന് ചോദ്യം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് എന്നാലത് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് യു യു ക്കെ അമേരിക്ക അങ്ങനത്തെ രാജ്യങ്ങളേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫുള്ളി ഫ്രീഡമാണ് അവർ ആരും ചോദിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ചെല്ലത്തില്ല എന്ത് കൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ പൂര്വികർ നമുക്ക് തന്നിട്ട് പോയ കൾച്ചറളെല്ലാം നമു കൾച്ചറും കാര്യങ്ങളും എന്തിനാണ് നമ്മൾ പിന്നേം പിന്നേം റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്യേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ എന്നാലും മാറ്റേണ്ട കാര്യങ്ങള് ചിലത് എങ്കിലും നമ്മൾ മാറ്റിയിരിക്കണം അത് ബേസിക്കായിയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് രാഹു രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധീനെ കാണുക ആണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല ബട്ട് എനിക്ക് ആളെ കാണുക കാണണം കുറച്ച് നേരം സംസാരിച്ചിരിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ട്